ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഉപയോഗപ്രദവും ആയ ഒരു കണ്ടുപിടിത്തമാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ് ഉണ്ടായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിട്ടുള്ളതും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ വരവോടുകൂടി ഉപയോഗങ്ങൾ മാത്രമല്ല കുറേ ദോഷ ദൂഷ്യവശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇൻ്റർനെറ്റ് നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ പലവിധത്തിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതാണ് ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ഇൻ്റർനെറ്റ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത അതുകൊണ്ടുതന്നെ നമ്മുടെ നമുക്ക് ആവശ്യമായ എന്തു വിവരം അറയണ അറയണമെങ്കിലും തന്നെ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചും രാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നമുക്ക് വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല ഇൻ്റർനെറ്റിലൂടെ തന്നെ നമുക്ക് എന്തു വിവരം വേണമെങ്കിലും അറിയാവുന്നതാണ് ഇൻ്റർനെറ്റ് അതുകൊണ്ടുതന്നെ ഇൻ്റർനെറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഒരുപാട് സഹായകരമായ ഒന്നാണ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് സംസ്ഥാനത്തിൻ്റെ എന്ത് അറിയണമെങ്കിലും എന്തു കാര്യം വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികശേഷി പോപ്പുലേഷൻ ജനസാന്ദ്രത അങ്ങനെ തുടങ്ങി എന്തു വിവരം വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ അറിയാവുന്നതാണ് അതുകൊണ്ട് എവിടെയിരുന്നാലും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആക്സസുള്ള എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ ഏതു കോണിലായാലും നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് ഏ ഇന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ടു മാത്രം നമുക്ക് ഇന്ന സ്ഥലത്തിൻ്റെ ഒരു വിവരണം കിട്ടൂ എന്നില്ല നമുക്ക് എവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് നിഷ്പ്രയാസം ഏതു സ്ഥലത്തെ കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അറിയാം അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സേവനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുവഴി അറിയാവുന്നതാണ് ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും നല്ല ഒരു സവിശേഷത എന്നു പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങളെന്നു പറയുമ്പോൾ ഏതു വിഭാഗത്തിൽപ്പെട്ടവർക്കും നമുക്ക് എളുപ്പത്തിൽ ചെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇൻ്റർനെറ്റ് അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വരവ് നമ്മുടെ മനുഷ്യർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒന്നാണ് അതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാനത്തെക്കുറിച്ചും സംസ്ഥാനത്തിത്തും ഒരുപാട് ഉപയോഗപ്രദമായ ഒന്നാണ് ഈ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലൂടേ നമുക്ക് എന്തു കാര്യം വേണമെങ്കിലും അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഏതു മനുഷ്യർക്കും ഇൻ്റർനെറ്റ് വളരെ പ്രയോജനകരമായി ഉപയോഗിക്കാൻ പെടുത്താം ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ വരവ് ഒരു ഉപകാരപ്രദമായ ഒന്നാണ്